പലതരത്തിലുള്ള പാചക ഇത് രീതികളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ചില സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട് അല്ല നമ്മള് കഴിക്കുന്ന നമ്മള് കഴിക്കണ ഫുഡ് കാര്യങ്ങളൊന്നും നമുക്കത്ര ബുദ്ധിമുട്ട് ഇല്ല അപ്പം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക നമ്മള് ഡെയിലി കഴിക്കുന്ന ഫുഡ് കാര്യങ്ങള് വെജ് വെജിറ്റേറിയൻ ഫുഡ്സ് ഫുഡാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക കാരണം ഉണ്ടാക്കാൻ എളുപ്പം നമുക്ക് അതാണ് നോൺ വെജിനേലും നമുക്ക് വെച്ച് നോക്കുമ്പം എളുപ്പം വെജ് തന്നെ ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക അതാണ് പിന്നെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെണ്ടാക്കാനായിട്ട് അത്യാവശ്യം ചെല സ്വീറ്റ്സ് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അത് കൂടുതലും കുറവാണ് ചെയ്യാറ് കാരണം നമ്മള് ബുദ്ധിമുട്ടായ കാരണം കുറ അത് ചെയ്യല് കുറവാണ് കൂടുതലും നമ്മള് ചെയ്യല് വെജ് വെജിറ്റേറിയൻ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ പ്രീപെയർ ചെയ്യും കാര്യങ്ങളൊക്കെയാണ് നമ്മള് കൂടുതലായും ചെയ്യാറ് കാരണം നമുക്ക് എളുപ്പം അതാണ് അതുകൊണ്ട് അതാണ് കൂടുതലും ചെയ്യാറ്